നീന്തൽ ആരോഗ്യത്തിന് ഏറ്റവും നല്ലതാണ് ഏറ്റവും നല്ല വ്യായാമമാണ് നീന്തൽ ശ്വാസകോശത്തിന് ഏറ്റവും നല്ലതാണ് കൂടാതെ നീന്തൽ പടിച്ചാൽ മറ്റുള്ളവർ വെള്ളത്തില് പോയാല് അവരെ രക്ഷിക്കാനും നമുക്ക് പ്രയോജനപ്പെടും അതൊക്കെയാണ് നീന്തൽ